ഒരു മൃഗത്തെ നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾക്ക് കുറേ ഇപ്പോൾ കാര്യങ്ങളൊക്കേ കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരികയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യത്തേ കാലത്തൊന്നും ഒരു മൃഗത്തെ നമ്മൾ വളർത്തുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് വാക്സിൻ കാര്യങ്ങളൊക്കേ എടുക്കണം ഓരോ ടൈമിൽ ഉള്ള വാക്സിൻ പിന്നെ പഞ്ചായത്തു നിന്നുള്ള അപേക്ഷ അതായത് പഞ്ചായത്ത് നമ്മൾ അനുമതി നൽകിയാൽ മാത്രമേ നമുക്കൊരു പട്ടിയെ ആണെങ്കിലും ഏതിനെ ആണെങ്കിലും നമുക്ക് വളർത്താൻ ഉള്ളൊരു കാര്യമൊക്കേ ഉള്ളൂ അപ്പം അതൊക്കേ ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട് പിനെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പഞ്ചായത്ത് നിന്ന് തന്നേ ലൈസൻസ് കാര്യങ്ങളൊക്കേ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പട്ടിയെ ആണെങ്കിലും വളർത്താൻ പറ്റുകയുള്ളൂ പിന്നേ ഇപ്പോൾ നമ്മൾ പശുവിനെയൊക്കേ വളർത്തുകയാണെങ്കിൽ നമുക്ക് അതിന് ഇൻഷുർ കാര്യങ്ങൾ ഒക്കേ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ കാര്യങ്ങളൊക്കേ അതായത് പശു പശുവിന് എന്തെങ്കിലും ഒക്കേ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള എമൗണ്ട് കാര്യങ്ങളൊക്കേ കിട്ടണമെങ്കിൽ ഇൻഷുർ ഒക്കേ ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഇതിനേ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് യൂട്യൂബ് ചാനലുകളിലൊക്കേ അവർ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം അതൊക്കേ കാണാറുണ്ട് പിന്നേ ചില പത്ര ലേഖനങ്ങളിലൊക്കേ ഇങ്ങനേ മൃഗ സംരക്ഷണ വകുപ്പിൻ്റെ ഒക്കേ ആയിട്ടുള്ള രീതിയിൽ അങ്ങനേ കാണാറുണ്ട് പിന്നേ അല്ലെങ്കിൽ ചില പുസ്തകങ്ങളൊക്കേ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻറ്റകത്തുനിന്നും മനസ്സിലാക്കാവുന്നതാണ്